ഷെയർ മാർക്കറ്റെന്ന് പറയുമ്പോൾ അത് ഒരുപാട് തരത്തിലുണ്ട് ഷെയർ മാർക്കറ്റ് അപ്പം ഇന്നത്തെ കാലത്ത് ഷെയർ മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രോഫിറ്റ്സ് മാത്രം നോക്കിട്ടുള്ളത് ഷെയർ മാർക്കറ്റ്സാണ് കൂടുതൽ അവൈലബിൾ ആവുന്നത് പിന്നെ ഷെയർ മാർക്കറ്റ്സിൻ്റെ പേരിൽ ഇപ്പം ഒരുപാട് ഫേക്ക് കാര്യങ്ങൾ വന്നു ഒരുപാട് പണം തട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളും അതിലുണ്ട് കറൻ്റ് മാർക്കറ്റ് എന്നു പറയുമ്പോൾ കറൻ്റ് മാർക്കറ്റിൽ ഇന്നത്തെ ഒരു മാർക്കറ്റ് സിസ്റ്റം എന്നു പറയുന്നത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നുള്ളതാണ് ഒരു ഏതൊരു കാലത്തിൻ്റെ ഈ മാർക്കറ്റിൻ്റെ ഒരു ഒരു സാധ്യത എന്നു പറയുന്നത് സർവൈവൽ ഓഫ് ഫിറ്റെസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നത് പോലെ തന്നെ ഈ ആരാണോ കേമൻ അയാൾ അയാൾക്ക് അനുസരിച്ചു മാർക്കറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ ഇന്നത്തെ ലോകത്ത് നടന്നു കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിങ് സിസ്റ്റം എന്നു പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് അതിനുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് കാണാൻ കഴിയും മാർക്കറ്റിലെ മണി വാല്യൂ സപ്ലൈ ഡിമാൻഡ് ഇൻ സപ്ലൈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇന്നത്തെ മാർക്കറ്റിൽ ആരാണോ മുന്നിലുള്ളത് അവരുടെ ഒരു സംതൃപ്തിക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ അവൈലബിലിറ്റിയും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം സംഭവിക്കുക പിന്നെ മാർക്കറ്റിൽ മാറ്റങ്ങൾ വരിക നിലവിൽ ഇപ്പം ഏറ്റക്കുറിച്ചിലുകൾ ഒക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇപ്പം ഇപ്പം കറൻ്റായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ പാക്കിസ്ഥാൻ യുദ്ധം നടന്നില്ല അത്യാവശ്യം ഒരു വലിയ രൂപത്തിൽ നടന്നില്ല എങ്കിൽ പോലും അതൊരു വലിയ രൂപത്തിൽ നടക്കുമായിരുന്നു നടന്നിട്ടുണ്ടാവും നടന്നിട്ടുണ്ട് എന്ന് സാങ്കൽപ്പിക്കുക അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും വിപണിയിൽ വില അധികരിക്കും സ്വാഭാവികമായിട്ടും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും അപ്പം അതിന് വേണ്ട എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റു രൂപത്തിലുള്ള ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റു രൂപത്തിലുള്ള കാര്യങ്ങൾ സ്വഭാവികമായിട്ടുണ്ടാകും അപ്പം അത് എന്താണ് ഒരു വിപണിയിൽ വില കൂടാനുള്ള ഒരു കാരണമാണ് ഡിജിറ്റൽ ആപ്പുകൾ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഗൂഗിൾ പേ സർവീസ് കാര്യങ്ങൾ ഡിജിറ്റൽ ആപ്പ് ഗൂഗിൾ പേ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോർട്ടലിൽ പൈസ ഇട്ടു കഴിഞ്ഞാൽ അപ്പം ഒരുപാട് അത് ഡിജിറ്റൽ വേഗതയിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തി എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ അപ്പം കറക്റ്റായിട്ടുള്ള പൈസകൾ കൊടുത്ത് കറക്റ്റായിട്ട് അപ്പം അപ്പ വാങ്ങുക അതിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങളും കാര്യങ്ങളുമുണ്ട് പക്ഷെ ഗൂഗിൾ പേ ആപ്പുകൾ ഗൂഗിൾ പേ പോലെയുള്ള ആപ്പുകൾ സെക്യുവേർഡാണ് എങ്കിലും സെക്യുവേ് അല്ലാത്ത ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട് ഇപ്പം ക്യാഷ് ബാക്കുകൾ ലഭിക്കുന്ന ഒരുപാട് സിസ്റ്റം ഇതിലുണ്ട് അതൊക്കെ ഉപകാരമാണ് എങ്കിലും സെക്യുവേഡ് അല്ലാത്ത യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും അപകട സാധ്യതകളും ഒരുപാടുണ്ട് അതൊക്കെ നമ്മൾ ഈ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്